ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഭാരതത്തിലെ അഥവാ ഇന്ത്യയിലെ കലാകാരന്മാർക്കും പല തരത്തിലുള്ള കലകൾക്കും ലോക നിലവാരത്തിൽ ലോക ലോകോത്തരത്തിൽ പ്രാന്ത് പ്രാതിനിധ്യം ഓൾറെഡി ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞിരുന്നാലും നമ്മുടെ കലയെ കൂടുതൽ നമുക്ക് പ്രചോദിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ കലകൾ കലാകാരന്മാരുടെ കഴിവ് പ പലതരത്തിലുള്ള ഇന്ത്യയുടെ വിവിധ തരത്തിലുള്ള വൈവിധ്യമാർന്ന കലകൾ ഇവയെല്ലാം ലോകത്തിലെ രാജ്യങ്ങളെയും ലോകത്തിലെ പൗരൻമാരെയും കൂടുതലായിട്ട് അറിയിയ്ക്കണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അങ്ങനത്തെ ലോകോത്തര വേദികളിൽ ലോകോത്തര വേദികളിൽ നമ്മുടെ കലാകാരന്മാരുടെ കഴിവ് നമ്മുടെ വൈവിധ്യമാർന്ന കലകളും അവതരിപ്പിക്കേണ്ടതുണ്ട് അതാണ് ഏറ്റവും എളുപ്പമായുള്ള ഒരു വഴി പ്രാതിനിധ്യം വർ വർദ്ധിപ്പിയ്ക്കാൻ കലകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിയ്ക്കാൻ പിന്നെ ഈ അടുത്തായിട്ട് ഡിജിറ്റൽ സോഷ്യൽ മീഡിയകളുടെ സ്വാധീനമൊക്കെ നമ്മുടെ കലാകാരന്മാരെയും കലയെയും ബാധിക്കുന്നുണ്ട് പക്ഷെ അത് നല്ല പോസിറ്റീവ് രീതിയിലാണ് ബാധിക്കുന്നത് കാരണം സമൂഹ മാധ്യമ സമൂഹ മാധ്യമങ്ങളിൽക്കൂടെ ഇത് കൂടുതൽ ആൾക്കാരിലേയ്ക്ക് എത്തുകയാണ് ചെയ്യുന്നത്